ഹലോ ഇത് ശ്രീകുമാർ ട്രാവൽസ് ആയിരുന്നോ ആ ഞാൻ ഇതുപോലെ ഒരു ഒരു ഓട്ടത്തിൻ്റെ കാര്യം പറയാൻവേണ്ടി വിളിച്ചതാണ്

ആ ഞങ്ങൾക്കൊരു എട്ടാൾക്ക് പോകാനാണ് ആ നമുക്ക് ഇപ്പം മൂന്നാറാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങളൊരു എട്ട് പേരുണ്ട് പിന്നെ രണ്ടു പിള്ളേരും കൂടെ ഉണ്ട് ആണോ അത് ടവേരയിൽ സുഖമായിട്ട് പോകാൻ പറ്റുമോ ആ ആ അപ്പോൾ ആ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുമോ എന്നാൽ ഞങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉള്ള പാക്കേജ് ആണ് വേണ്ടത് ആ അപ്പോൾ ഞങ്ങൾക്ക് മറ്റെന്നാളത്തേക്ക് പോകാനായിരുന്നു ആ അപ്പം അതിന് അതൊന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് ആണ് അപ്പം മറ്റെന്നാൾ വെളുപ്പിനെ ഒരു അഞ്ച് മണിക്ക് ഞങ്ങൾക്കിറങ്ങാൻ വേണ്ടിയായിരുന്നു പിന്നെ നിങ്ങൾ ആ മൂന്നാറിലെ ഗൈഡ് ഒക്കെ നിങ്ങൾ എടുത്ത്കൊള്ളുമല്ലോ ആ ഫുൾ നിങ്ങൾക്ക് അപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ആ പതിനെട്ട് രൂപ ഫുഡ് ആൻഡ് അക്കമഡേഷൻ പിന്നെ ഇടയ്ക്ക്ഒക്കെ ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ആണ് നിങ്ങൾ അതും ഉണ്ടോ ആ ഹോം സ്റ്റേ ആണോ അതോ റിസോർട്ട് ആണോ ആ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോം സ്റ്റേ ആണ് വേണ്ടത് ഞങ്ങളിപ്പം ആ ഒരു പൂൾ ഒക്കെ വേണം പ്രൈവറ്റ് പൂൾ കാണുമോ ആ അ ആ അപ്പം നിങ്ങൾ ഇപ്പം പിക്ക് ചെയ്യാൻ ഞങ്ങളുടെ വീടിനടുത്തെ ലൊക്കേഷൻ ഞങ്ങൾ അയക്കാം ആ അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഒരു അഞ്ച് മണിക്ക് ഇറങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രമണിക്ക് അവിടെ ചെല്ലും ആ ഉം അപ്പോൾ ഞങ്ങൾക്കവിടെ രണ്ടു ദിവസം സ്റ്റേയും കൂടെ വേണമായിരുന്നു കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ആ നിങ്ങൾ അപ്പം അതിൻ്റെയൊരു ക്യാറ്റലോഗ് എനിക്ക് വാട്സാപ്പ് സെൻറ് ചെയ്തേക്ക് കേട്ടോ ആ ആ ഒക്കെ ഒക്കെ ഒക്കെ ഇത് തന്നെ ഇത് തന്നെ ഈ നമ്പറിലോട്ട് അയച്ചാൽ മതി